എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപെട്ട പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തി എഴുതിയ പുസ്തകത്തെ ഒരുപാട് ഇഷ്ടപെടുന്ന ആളാണ് ഞാൻ എന്ന നിലയ്ക്ക് പ്രമേലഖനം എന്ന പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ പ്രണയത്തെക്കുറിച്ച് നല്ല രീതിയിൽ വിവരിക്കുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ആ പുസ്തകത്തിൽ നിന്ന് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാ സന്ദർഭങ്ങൾ പ്രമേലഖനം എന്ന പുസ്തകത്തിലുണ്ട് എന്നെ ഏറ്റവും കൂടുതലാകർഷിച്ചത് പ്രമേലഖനം എന്ന ഹെഡ് ലൈൻ തന്നെയാണ് പ്രണയം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രണയം എൻ്റെ മനസ്സിലുണ്ട് അത് മറ്റൊരു വ്യക്തിയോടല്ല പ്രണയം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് പ്രണയ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളെ എനിക്ക് ഇഷ്ടപെട്ടത് അതുകൊണ്ടായിരിക്കും ഞാൻ പ്രേമലേഖനം എന്ന ബഷീറിൻ്റെ പുസ്തകം തെരഞ്ഞെടുക്കാനുള്ള കാരണം അതിൽ പ്രണയത്തിൻ്റെ ഒരുപാട് തലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തകൾ അതിലുണ്ട് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച നാടിൻ്റെ ആ നാട്ടു ഭാഷ താനെഴുതുന്ന കഥയിലേക്ക് കൊണ്ട് വരാൻ അദ്ദേഹം ഒരുപാട് ശ്രമിക്കാറുണ്ട് തൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ജീവിത തന്തിയായിട്ടുള്ള സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളെ എഴുത്തിലൂടെ കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുക്കാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ നാടിനെ നാട്ടു ഭാഷയെ നാട്ടു ഭാഷയും ആ തന്താനെഴുതുന്ന കഥയിലേക്ക് കൊണ്ടു വരാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് സ്നേഹത്തിന് വളരെ നല്ല വാക്ക് കൊണ്ട് വളരെ നല്ല തലങ്ങളിലേക്ക് എത്തിക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറിന് സാധിക്കുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥ കുറച്ച് വായിച്ചാൽ ആദ്യം വായിച്ചാൽ മൊത്തം വായിക്കാൻ തോന്നും എന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ എഴുത്തിനെ മുമ്പോട്ട് കൊണ്ട് പോകുന്നത് തൻ്റെ എഴുത്തിനെ എഴുതാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്ക ശ്രമിക്കാറുള്ളത് അപ്പോൾ എന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രേമലേഖനം എന്ന പുസ്തകങ്ങളിലേക്ക് അല്ലെങ്കിലത് മുഴുവൻ വായിക്കാൻ ഞാൻ തീരുമാനിക്കാനുള്ള കാരണം അതു തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചാൽ മുഴുവൻ ഭാഗവും വായിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവും അതാണ് ഒരു പ്രണയം ഒരു ചിലപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രണയം സംഭവിക്കണമെന്നില്ല ചിലരുടെയൊക്കെ ജീവിതത്തിൽ പ്രണയം സംഭവിച്ചേക്കാം പ്രണയമുള്ളവരുടെ പ്രണയം എങ്ങനെ കൂടുതൽ ദൃഡമാക്കാം എന്നതിനെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറെഴുതിയ പ്രമേലഖനം എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലെങ്കിൽ അത് വായിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് മറ്റുള്ളൊരു വ്യക്തിയെ പ്രണയിക്കണം എന്ന തോന്നലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രമേലഖനം എന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രമേലഖനം എന്ന പുസ്തകം വായിക്കലോടു കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു അല്ലെ ങ്കിൽ എങ്ങനെ കാണണം എങ്ങനെ കാണാൻ ശ്രമിക്കണം എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരുപാട് ജീവിത പാഠങ്ങൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതിൽ പ്രധാന പ്രധാനമായും രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ഒന്നത് സാറാമ്മ മറ്റൊന്ന് നേര് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പം മറന്നുപോയി മറക്കാൻ മറക്കാൻ പാടില്ലാത്തതാണ് എന്നാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പേര് മറന്നു പോയി അതിലെ സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് എന്താണെന്ന് വച്ചാൽ സാറമ്മ എന്നാണ് അതിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാറമ്മ നല്ല പഠിച്ച ഒരു കുട്ടിയാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ കുറച്ച് മുമ്പാണ് വായിച്ചത് ഒന്നൊന്നര വർഷം മുമ്പാണ് വായിച്ചത് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ട് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ സാറമ്മ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയാനുള്ള കാരണം സാറമ്മ ഗോവിന്ദൻ നായരോട് സംസാരിക്കുമ്പോൾ അവർ സംഭാഷണത്തിൽ ആയി നിൽക്കുമ്പോൾ അതിൽ സാറമ്മ ഗോവിന്ദൻ നായരുടെ ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സാറമ്മയുടെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം അല്ല സോറി ആ പുരുഷ കഥാപാത്രത്തിൻ്റെ പേരെന്താണെന്നെനിക്ക് ശരിക്ക് ഓർമ്മയില്ല ആ പുരുഷ കഥാപാത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം ഇതായിരുന്നു തനിക്ക് ജോലിയൊന്നും ആയില്ലേ അതിന് സാറാമ്മ കൊടുത്ത മറുപടി എന്താണെന്ന് വച്ചാൽ എനിക്ക് ഞാനിപ്പോൾ ബി എ കഴിഞ്ഞു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ നായരെന്നാണെനിക്ക് തോന്നുന്നത് ശരിക്കും ഓർമ്മയില്ല ആ പുരുഷ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ഗോവിന്ദൻ നായർ പറയുന്ന മറുപടി എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ എം എ കഴിഞ്ഞ് നിൽക്കുന്നോർക്കടക്കം ജോലിയില്ല പിന്നെങ്ങനെയാണ് ബി എ പഠിച്ചിറങ്ങിയവർക്ക് ജോലി കിട്ടാൻ സാധ്യത എന്ന് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ എത്ര പഠിച്ചു എന്നതിലല്ല എന്ത് പഠിച്ചു എന്നതിൽ എത്ര ക്വാളിറ്റിയിൽ പഠിച്ചു എന്നതിനാണ് കാരണം പ്രധാനം ഇത് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു പാഠം എന്താണെന്ന് വച്ചാൽ ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ പഠിക്കണം നല്ല രീതിയിൽ പഠിക്കണം ക്വാളിറ്റിയിൽ തന്നെ പഠിക്കണം വേണോ വേണ്ടയോ എന്ന മനസ്സിലൂടെ അല്ലാതെ തനിക്ക് എന്തായാലും വേണം അല്ലങ്കിൽ തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടാകും കഴിവില്ലാത്തവരായി ആരുമില്ല ചിലർ തൻ്റെ ജീവിതത്തിലെ തനിക്ക് കിട്ടിയ തൻ്റെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ കഴിവിനെ ചിലർ തിരിച്ചറിയുന്നു ചിലർ തിരിച്ചറിയുന്നില്ല തിരിച്ചറിഞ്ഞവർ തൻ്റെ ദൈവം കൊടുത്ത തൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞവർ അതും കൂടി തൻ്റെ പഠനത്തിനോടൊപ്പം മുമ്പോട്ട് കൊണ്ട് പോകണം വെറും അക്കാഡമിക്കലായിട്ടുള്ള പഠനം മാത്രമല്ലാതെ സൈഡ് പഠനത്തിൻ്റെ ഒരു സൈഡ് ബിസിനസ് എന്നാണ് ബിസിനസ്സെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞതാണ് സൈഡ് ബിസിനസ്സായിട്ട് നമ്മുടെ സ്കില്ലിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക

ആ പുസ്തകത്തിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് പ്രേമലേഖനം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഭാഗം എന്ന് പറയുന്നത് പ്രേമലേഖനം എന്ന പുസ്തകത്തിലെ ക്ലൈമാക്സാണ് വായിച്ച് വായിച്ച് അവസാനത്തോടടുക്കുമ്പോൾ വളരെ കുറച്ച് പുസ്തകം പേജുകൾ മാത്രമേ ഉള്ളു ഞാൻ ഒറ്റയിരുപ്പിൽ വായിച്ച് തീർത്ത ഒരു പുസ്തകമാണ് എൻ്റെ ലൈഫിലെ കുറച്ച് പുസ്തകം മാത്രമേ ഞാൻ ഒറ്റയിരുപ്പിൽ വായിച്ച് തീർത്തിട്ടുള്ളു അതിലൊരു പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകം അതിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ ക്ലൈമാക്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും എനിക്കിഷ്ടപ്പെട്ടതും അത് എന്താണെന്ന് വച്ചാൽ അതൊരു ട്വിസ്റ്റാണ് ഒന്നൊന്നര ട്വിസ്റ്റ് അവർ പ്രണയത്തിലായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലായിരിക്കുമ്പോൾ പണ്ടത്തേക്കാലം എന്ന് വച്ചാൽ നമുക്കറിയാം അവിടെ ഒരുപാട് ദാരിദ്ര്യം ഉള്ള കാലമാണ് അങ്ങനെ ഗോവിന്ദൻ നായർ ഗോവിന്ദൻ നായരുടെ കയ്യിൽ നിന്നും സാറമ്മ ഇടയ്ക്കിടയ്ക്ക് അല്ലങ്കിൽ മാസത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ഓർമ്മയില്ല ഒരു സംഖ്യ കൊടുക്കുന്നുണ്ട് സാറമ്മക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇടക്കിടെക്കിങ്ങനെ സാറാമ്മക്ക് പണം കൊടുത്തു കൊടുത്തു അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ വായിക്കുന്നവർക്ക് തോന്നുന്നത് എന്താണെന്ന് വച്ചാൽ ഈ സാറാമ്മയോട് ദേഷ്യം തോന്നും ഈ പൈസയൊന്നുമില്ലാത്ത സമയത്ത് സാറമ്മ എന്തിനാണ് വെറുതെ ഈ ഗോവിന്ദൻ നായരുടെ കയ്യിൽ നിന്ന് പണമെടുക്കുന്നതെന്ന് അങ്ങനെ അത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ആ പൈസയ്ക്ക് ആ ക്ലൈമാക്സിൽ ട്രെയിനിൽ ആണെന്ന് തോന്നുന്നു അവർ ട്രെയിനിൽ പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് തോന്നുന്നു ജീവിക്കാൻ വേണ്ടി ട്രെയിൻ പോകുമ്പോഴാണ് ഈ കാര്യം നേരെ മനസ്സിലാകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദൻ നായർ സാറമ്മയ്ക്ക് കൊടുത്ത ഈ പൈസയൊക്കെ സാറാമ്മ സ്വരൂപിച്ച് വച്ചിട്ടുണ്ടായിരുന്നു സ്വരൂപിച്ച് വച്ച് അവസാനം ഒരു കത്തിലൂടെ പ്രണയ പ്രേമലേഖനം എന്ന കത്തിലൂടെ അത് ഗോവിന്ദൻ നായർക്ക് കൊടുത്തു അത് വല്ലാത്തൊരു എക്സ്സ്പീരിയൻസാണ് അത് വായിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ അധികമാണ് ഈ പുസ്തകമിറങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പോഴത്തെ കാലത്ത് ഇത് പോലത്തെ ട്വിസ്റ്റെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സിനിമകളിലായാലും പുസ്തകങ്ങളിലായാലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലായാലും ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിക്കാറുണ്ട് കേൾക്കാറുണ്ട് അതു കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെക്കാലത്തെ ട്വിസ്റ്റുകളൊന്നും ഒന്നുമല്ലെന്നും ആ പണ്ടത്തെ പ്രേമലേഖനം വായിച്ചപ്പോൾ ഇത് അന്നത്തെക്കാലത്താണ് സംഭവിച്ചത് അന്നത്തെ ഒരു നോവലാണ് എന്ന് വിശ്വാസി വിചാരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകമാണ് ഞാൻ ഇതുവരെ വായിച്ചതിൽ വച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം